ഇപ്പോൾ നമ്മുടെ ഗതാഗതമേഖലയില് നമ്മുടെ സാങ്കേതിക വിദ്യ ടെക്നോളജി നല്ല രീതിയ്ക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുൻപത്തെ പോലെ ബസ് സർവീസുകളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിൻ്റെ ആയാലും ഫ്ലൈറ്റിൻ്റെ ആയാലും ഏതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എങ്കിലും ഓൺലൈനിൽ നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ടു തന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം പണ്ട് അങ്ങനെയായിരുന്നില്ല ഒരു സ്ഥലത്ത് പോയി അതിൻ്റെ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ ഏത് ബസ് എത്ര സമയത്താണ് ഇതൊക്കെ അറിയണമെങ്കില് നമ്മള് ട്രെയിൻ ആണെങ്കിലും ബസ് ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് അവിടെ പോയാൽ മാത്രമേ എന്താ പറയുക ചെയ്യാൻ പറ്റൂള്ളായിരുന്നുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഫാസ്റ്റാഗ് റീചാർജ് ആണെങ്കിലും വണ്ടി ലൈസെൻസ് റിന്യൂവൽ ചെയ്യാൻ ആണെങ്കിലും വണ്ടീൻ്റെ ലൈസെൻസ് പുതുക്കാൻ ആണെങ്കിലും നമുക്ക് ലൈസെൻസ് എടുക്കാൻ ആണെങ്കിലും ഒക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി എല്ലാത്തിനും നമുക്ക് സിംപിളായിട്ട് പറ്റുന്നുണ്ട് പണ്ട് ഇതിന് എല്ലാത്തിനും നമ്മൾ ഓരോ ഓഫീസികളിലും പോയി കയറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മുടെ സമയം കുറെ വേസ്റ്റ് ഇപ്പോൾ എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ഇപ്പോൾ പെട്ടന്ന് പെട്ടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണോ പെട്ടന്ന് ചെയ്യാം അതുപോലെ ട്രെയിൻ നോക്കണമെങ്കിലോ എവിടേക്കാ ട്രെയിൻ കാര്യങ്ങൾ നോക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ആപ്പ് വഴി നോക്കാൻ പറ്റും പിന്നെ അതുപോലെ ബസ്സിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ലോങ്ങ് ലോങ്ങ് റൂട്ട് പോകുന്നതാണെങ്കിലും ഈ നമ്മുടെ കെഎസ്ആർടിസി ആണെങ്കിലും ഏത് ബസ്സിൻ്റെ ആണെങ്കിലും അതിൻ്റെ നോക്കാം പിന്നെ എന്താ പറയുക ഫാസ്റ്റാഗ് റീചാർജ് അത് നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും ലൈസെൻസ് എടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആർടിഓൻ്റെ പരിവാഹൻ ആപ്പ് വഴി അത് ലൈസെൻസിന് അപ്ലൈ ചെയ്യാം അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായ രീതിയിൽ ഓൺലൈൻ ആയിട്ട് ചെയ്യണ കൊണ്ട് തന്നെ എന്താ പറയുക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല